ആരോഗ്യ പിന്നെ ആരോഗ്യ പരിരക്ഷാന്ന് പറഞ്ഞിട്ട് കുറെ സേവനങ്ങള് നമുക്ക് പിന്നെ ഉണ്ട് ഗവണ്മെന്റിൻ്റെ അടുത്ത് നിന്നൊരു കാർഡ് ആരോഗ്യ ഇൻഷുറൻസ്ന്ന് പറഞ്ഞ് മറ്റൊരു കാർഡുണ്ട് അത് അധികം ക്ലെയിം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ എന്തൊക്കയോ ആണെന്ന് തോന്നുന്നു അത് നമുക്ക് വീട്ടിലത് കാർഡ് എടുക്കുവാണങ്കിൽ നമുക്ക് വീട്ടില് അത് കാർഡിലങ്കോള്ള പേരുള്ള ആൾക്കാർക്ക് ഗ പിന്നെ ചികിത്സാ സഹായം ലഭിക്കും എത്ര രൂപയാണെങ്കിലും നമുക്ക് എന്തോരു ഇപ്പം ഒരു അമ്പത് ലക്ഷം അല്ല ഒരു ലക്ഷം രൂപേൻ്റെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്നടച്ചാൽ മതി ബാക്കി മുഴുവൻ ഗവണ്മെന്റിൻ്റെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ എന്തോ ആണ് അപ്പം നല്ല നല്ല പദ്ധതികൾ ആണ് അത് അപേക്ഷിക്കേണ്ടതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അക്ഷയ വഴിയാണ് അപേക്ഷിക്കണ്ടേന്ന് തോന്നുന്നു പിന്നെ നേട്ടങ്ങള് നമുക്ക് പെട്ടന്നുള്ള പൈസകളൊക്കെ ഉപകാരപ്പെടുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഒത്തിരി പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം പൈസ ഇല്ലങ്കില് നമുക്ക് കുറച്ച് പൈസയൊക്കെ തിരുമറി ആക്കിയാൽ മതി പിന്നെ നമ്മുടെ കുടുംബത്തില് ഇപ്പം ആർക്കും അങ്ങനത്തൊരു പ്രയോജനം എടുത്ത് വീട്ടിലുണ്ട് പക്ഷെ ഇത് വരെയായിട്ടും കൊടുക്കേണ്ടി വന്നട്ടില്ല പക്ഷെ എന്തേലും ഒരു എമർജൻസി വന്നാൽ നമുക്ക് കൊടുക്കണല്ലോന്ന് വിചാരിച്ച് നമ്മള് എടുത്ത് വച്ചയാ എപ്പോഴാണ് ഒരാൾക്ക് അസുഖമൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് വരുന്ന ഒന്നല്ല അസുഖം പെട്ടന്നാണ് വരുന്നത് അതുകൊണ്ട് എടുത്ത് വച്ചാൽ നമുക്ക് ഉപകാരപ്പെടും